ചില ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുണ്ട് അതായത് പണ്ടിങ്ങനെ നമ്മൾ കോഴിയെ വളർത്തുമ്പോൾ അതുങ്ങളെ പിന്നെ പറമ്പിലൂടെ അഴിച്ചു വിടുന്നു അവർ പറമ്പിലൂടെ തന്നെ അതിൻ്റെ ആഹാരം ഒക്കെ കണ്ടെത്താനായിട്ട് അതുങ്ങളെ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ ഉള്ള ഒരു രീതിയിൽ നിന്നു പറയുന്നത് ഇങ്ങനെ ഫാം മാതിരി കെട്ടി അതിൽ ഇങ്ങനെ കോഴി വളർത്തൽ നടത്തുന്നുണ്ട് അപ്പോൾ അതിന് പിന്നെ ഇപ്പോൾ നമ്മുടെ പിന്നെ കടകളൊക്കെ സുലഭമായിട്ടു തന്നെ തീറ്റകൾ തീറ്റ ഐറ്റംസൊക്കെ ലഭിക്കുന്നുണ്ട് പിന്നെ തവിടും അല്ലാതെ ഇതുങ്ങളുടെ പിന്നെ പ്രായത്തിന് അനുസരിച്ചുള്ള രീതിയിലുള്ള പിന്നെ ആഹാരം സാധനങ്ങൾ കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലുതായിട്ടോ ഈ ബിസിനസ്സിനെ ഈ ആഹാരത്തിൻ്റെ ഇതു ബാധിച്ചിട്ടില്ല കാരണം പിന്നെ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇതുങ്ങളെ പിന്നെ ആദ്യം നമ്മളിപ്പം ഏതൊരു സംരംഭത്തിലേക്കു പോയാലും ആദ്യം നമ്മൾ കുറച്ചു പൈസ നമ്മൾ അതിനു ചിലവഴിക്കണം അപ്പം എന്നു പറഞ്ഞതു പോലെ തന്നെയാണ് താറാവായിരുന്നാലും കോഴിയുടെ ആയിരുന്നാലും വളർത്തൽ നമ്മൾ കുറച്ചു പൈസയൊക്കെ നമ്മൾ പിന്നേ ആദ്യം അങ്ങോട്ട് ഇറക്കണം അപ്പം ഇറക്കിയെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊരു അതുകൊണ്ടൊരു ഒരു പിന്നെ ലാഭം അല്ലെങ്കിൽ ഒരു മെച്ചം ഉണ്ടാകുകയുള്ളു അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം കുറച്ചു പൈസയിറക്കി അതുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പിന്നേ ആഹാര തീറ്റകളെല്ലാം നമ്മൾ കടകളിൽ നിന്നും സംരംഭിച്ച് അത് വാങ്ങാൻ അത് കടകളിൽ നിന്നും വാങ്ങിച്ച് അവ അതുങ്ങൾക്ക് കൊടുത്ത് അതുങ്ങളെ വളർത്തി അതുങ്ങളിൽ നിന്നും നമ്മൾ പിന്നെ മുട്ട ലഭിക്കുന്നു പിന്നെ കുറേ പിന്നെ പ്രായമായി കഴിയുമ്പോൾ അതുങ്ങളെ നമുക്ക് പിന്നെ ഇറച്ചിക്ക് വേണ്ടി നമുക്ക് വിൽക്കാനായിട്ടു സാധിക്കും അപ്പോൾ കോഴിയുടെ പിന്നെ മുട്ട കിട്ടുന്നത് വഴിയായിട്ടും അല്ലെങ്കിൽ അതുങ്ങളെ പിന്നെ ഇറച്ചിക്ക് വിൽക്കുന്നത് വഴിയായിട്ടും നമുക്ക് ധാരാളം നമുക്ക് പിന്നെ ഒരു അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പൈസ മാർഗ്ഗം നമുക്ക് പല രീതിയിലുള്ള നമുക്ക് പൈസ ലഭിക്കാണ് ചെയ്യുന്നത് നമുക്ക് ജീവിതം മാർഗ്ഗം ജീവിതം ജീവിതോല്പാദനത്തിനു വേണ്ടി നമുക്ക് അതൊരു വലിയ സഹായകരപരമായിട്ടാണ് തീരുക പിന്നെ ഇപ്പോഴും പിന്നെ ചെറുകിട രീതിയിൽ കോഴി വളർത്തൽ നടത്തുന്നവരുണ്ട് അവർക്ക് ഒരിക്കലും പിന്നെ ഇങ്ങനെ അതുങ്ങളെ പിന്നെ ഫാം പോലെ അടിച്ചുണ്ടാക്കാതെയും ഒക്കെ പറമ്പിലൂടെ ഒക്കെ പിന്നേ അതുങ്ങളെപ്പോഴും അതുങ്ങളെ വിട്ട് പിന്നെ ആഹാരമൊക്കെ പിന്നെ അതുങ്ങൾക്ക് അതിനു സ്വയമായിട്ടു കണ്ടെത്താനായിട്ട് സാധിക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അതു തന്നെയാണ് ഏറ്റവും കൂടുതൽ അഭികാമ്യം പിന്നെ പക്ഷേ സ്ഥല സൗകര്യം ഒക്കെ സ്ഥലപരിമിതിയൊക്കെ കുറവായിട്ടുള്ള ആൾക്കാർക്ക് ഇതു സാധിക്കില്ല അതായത് അത് പിന്നേ അവിടെ അവർക്കൊരു ഇങ്ങനെ ഫാം പോലെ ഉണ്ടാക്കി അതിൽ ചെയ്യാനായിട്ടേ അവർക്കു സാധിക്കുകയുള്ളു